ഇപ്പോൾ ഡ്രസ്സ് ഓഡർ ചെയ്യാനായി എടുക്കുമ്പം നമ്മുടെ കയ്യിലൊരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവരെ അറിയിക്കത്തില്ലല്ലോ അപ്പോൾ നമ്മളത് ഒന്നുകിൽ ഡ്രസ്സ് ഡ്രസ്സ് പോരെന്നോ ഡ്രെസ്സിനെ ഡ്രെസ്സിനെ പറ്റി നമ്മളെന്തേലും പോരായ്മകൾ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും പറയുക മാത്രമേ ചെയ്യാറുള്ളു നമ്മളല്ലാതെ നമ്മുടെ കയ്യിന്ന് ഒന്നും ഇല്ലാന്നുള്ള ഇതിൽ നമ്മൾ പറയത്തില്ലല്ലോ സാമ്പത്തിക പ്രശ്നം മൂലമാണ് ഡ്രെസ്സെടുക്കാത്തത് നമ്മൾ അങ്ങനെ പറയാൻ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ ഡ്രസ്സ് പരമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലെയ്ൻസോ കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞ് അതിൽ നിന്നും മാറുന്ന മാറുക മാത്രമേ ഉള്ളു അല്ലാതെ നമ്മൾ മറ്റൊരു കാര്യങ്ങൾ നമ്മളതിൽ പറയാറില്ല